എനിക്ക് എപ്പോഴും ഇഷ്ടം പ്രകൃതിയിലെ മനോഹാരിതയെക്കുറിച്ചൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രകൃതിയിലെ മൃഗങ്ങൾ പിന്നെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഓരോ കായ്കനികൾ അതായത് ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെ ചിത്രങ്ങള് പിന്നെ ഓരോ അതായത് മനുഷ്യന്മാരുടെ മുഖങ്ങൾ വരക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പ്രകൃതിനെക്കുറിച്ചുള്ള ഒരോ പ്രകൃതിയിലെ ഓരോ ചലനങ്ങൾ നമ്മൾ വരച്ചു വരയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് മനസ്സിനു വല്ലാത്തൊരു സുഖമൊക്കെ തോന്നാറുണ്ട് പ്രകൃതി പ്രകൃതീന്നു പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ് എന്നൊക്കെ പറയുന്നകേട്ടിട്ടില്ലേ അത്പോലെ പ്രകൃതിയിലെ ഓരോ ചിത്രങ്ങൾ വരക്കുമ്പോ അതായത് അതുപോലെത്തന്നെ നമ്മൾ ഒപ്പിയെടുക്കുമ്പോൾ അതായത് പ്രകൃതിക്കു നമ്മൾ ജീവൻ നൽകുന്നപോലൊരു ഫീൽ നമുക്ക് എപ്പഴും എനിക്ക് എപ്പഴും തോന്നാറുണ്ട് പ്രകൃതീന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് അങ്ങനെയൊരു അതായത് അങ്ങനെയൊരു അനുഭവമാണ് അതായത് നമ്മൾ അത് വരച്ചെടുക്കുമ്പോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് നമ്മടെ കഴിവ് അതായത് നമ്മൾ അതിലൂടെ നമ്മളെ കാണുകയാണ് നമ്മൾ ഓരോ വര വരക്കുമ്പോഴും അത് നല്ല ഭംഗിയായി വരുമ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ നമ്മൾ അതിനെ വരയ്ക്കുമ്പോൾ അത് അത്രയും ഒരു സന്തോഷം നൽകും